മറ്റ് മതങ്ങളിലെ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും സ്നേഹവുമാണ് എന്നെ ഏറ്റവും കൂടുതല് ആകർഷിച്ചിട്ടുള്ളത് മറ്റു മതങ്ങളിലെ നമ്മൾ ആഘോഷിക്കുന്നതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഓണമാണ് അതുപോലെ തന്നെ ദീപാവലി ഇവ രണ്ടും നമ്മൾ മനുഷ്യനെ കൂടുതല് എല്ലാവരും തുല്യരാണെന്നും അത് ദൈവത്തിന് മുൻപിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നു അതുപോലെ തന്നെ വെളിച്ചം വെളിച്ചം ദൈവത്തിൽ നിന്നാണ് പ്രകാശം ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ആവുമ്പഴ് അവന് അന്ധകാരത്തെയോ അല്ലെങ്കിൽ തിന്മയോ പേടിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദീപാവലിയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ആഘോഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട് മറ്റ് നമ്മൾ മ മറ്റ് മതങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ധാർമിക മൂല്യങ്ങളോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതായത് ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരേയും സ്നേഹിച്ച് ഏറ്റവും ധാർമികമായ മൂല്യങ്ങൾ നൽകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ ഭ്ന് ഭാവനമാണെന്നുള്ള രീതിയില് പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ട് സ്നേഹിക്കുവാനും പ്രപഞ്ചത്തിലെ നിലനിർത്തുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് ഇത് ഈ പ് ട് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്